ഞാൻ നല്ല രീതിയിൽ പാചകം ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ് എനിക്ക് എല്ലാം നല്ല രീതിയിൽ പാചകം ചെയ്യാനറിയാം എല്ലാ ആഹാരവും ഞാൻ നല്ല രീതിയിൽ പാചകം ചെയ്യും ബിരിയാണി മാത്രം ഞാൻ പാചകം ചെയ്യാറില്ല അത് എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ല ഞാൻ പാചകം ചെയ്യാറുമില്ല ബാക്കി എല്ലാ കറികളും എല്ലാം ഞാൻ നല്ല രീതിയിൽ പാചകം ചെയ്യും എൻ്റെ ഭർത്താവിനും മക്കൾക്കും എല്ലാം ഞാൻ പാചകം ചെയ്യുന്ന ഭക്ഷണം വളരെ ഇഷ്ടമാണ് ഞാൻ അല്ലാതെ ആർക്കെങ്കിലും ഭക്ഷണം വരുന്നവർക്ക് ഉണ്ടാക്കികൊടുത്താലും അവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത് ഞാൻ ക ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഒരിതൊണ്ടങ്കിൽ എന്തെങ്കിലും കൂടു കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ അത് അവർ പറഞ്ഞ് അതിനെ ഞാൻ അവർ പറയുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ ഞാൻ പാചകം ചെയ്യും പാചകം തന്നെയാണ് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഇതും ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയാലും എനിക്ക് പാചകം ചെയ്യുന്നതിന് എനിക്ക് ഒരു മടിയും ഇല്ല നല്ല രീതിയിൽ ഞാൻ പാചകം ചെയ്യും എല്ലാ ആഹാരവും ഞാൻ നല്ല രീതിയിൽ വെക്കുകയും ചെയ്യും പാചകം ചെയ്യേം ചെയ്യും എല്ലാവർക്കും ഫുഡ് ഇഷ്ടമാണ്